മലയാള ഭാഷ ഹിന്ദി ഹിന്ദിയായിട്ട് അതിൻ്റെ അക്ഷരങ്ങള് പറയുമ്പോൾ അ ആ ഇ ഈ അതെ ക ഖ ഗ ഘ ങ അങ്ങനെ ഒക്കെ ഉള്ള അക്ഷരങ്ങള് സ്വരാക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് ഏകദേശം ഒരേ സാമ്യമുണ്ട് വാ വായിക്കുമ്പോൾ നമുക്ക് അക്ഷരങ്ങളേ ഒര് പക്ഷേ എഴുതുമ്പൊ വ്യത്യാസമുണ്ടാകും പിന്നെ വാക്കുകള് നമ്മൾ ഇപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ മാതാ ഏഹ് മലയാളത്തില് നമ്മൾ ഏട്ടൻ ചേച്ചി എന്ന് പറയുന്നത് ഇതില് ഭായി ബഹൻ അങ്ങനെ ഒക്കെ ആണ് പിന്നെ ഹിന്ദി നമ്മളുടെ രാഷ്ട്ര ഭാഷയാണ് നമ്മള് ഇ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഹിന്ദിയിൽ സംസാരിക്കും പക്ഷേ മലയാളം നമ്മളുടെ കേരളത്തില് മാത്രമെ ഉള്ളൂ മലയാളത്തിന് മലയാളം നമ്മളുടെ മാതൃ ഭാഷയും ഹിന്ദി നമ്മളുടെ രാഷ്ട്ര ഭാഷയും അങ്ങനെ ഒരു ചെറിയൊര് ഇത് ഉണ്ട് ഏഹ് ഹിന്ദി പഠിച്ചാല് ഒരുവിധം സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റും പക്ഷേ മലയാളം കൊണ്ട് നമുക്ക് മലയാള നാട്ടില് മാത്രമെ ആ പറ്റുകയുള്ളു മലയാളം മറ്റുള്ളവർക്ക് അത്ര അറിയില്ല മലയാളം കുറച്ച് ടാഫ് ആയിട്ടുള്ള ഭാഷ കൂടി ആണ് കൂടുതൽ അക്ഷരങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് മലയാളം പെട്ടെന്ന് മറ്റ് സംസ്ഥാനക്കാർക്ക് മറ്റ് രാജ്യക്കാർക്കൊക്കെ വന്നിട്ട് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരും